ഞങ്ങളുടെ പാലക്കാട് കൂടുതലായിട്ടും മതപരമായിട്ടുള്ള കാര്യമെന്നു പറയുമ്പോൾ മുസ്ലീമുകൾക്ക് നേർച്ച അതുപോലെയുള്ള പള്ളിയിലുള്ള ഉത്സവ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഹൈന്ദവർക്കാണെങ്കിൽ അവർക്കതു പോലെയുള്ള പൂരം വേല കൂമ്മാട്ടി അങ്ങനെയുള്ള സാ പരിപാടികളൊക്കെയുണ്ടാകും ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയുണ്ടാകും എല്ലാം വളരെ നല്ല രീതിയിൽത്തന്നെയാണ് ആഘോഷിയ്ക്കാറുണ്ട് ഞങ്ങൾ അതുപോലെത്തന്നെ ഭക്ഷണ വിഭവങ്ങളാണെങ്കിൽ നേർച്ചയ്ക്കൊക്കെയാണെങ്കിൽ നെയ്ച്ചോറും ബീഫ് കറിയും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും പിന്നെ അതുപോലെ റംസാൻ റംസാനും അതുപോലെ ഞങ്ങൾ പരിപാടികളൊക്കെ വെയ്ക്കാറുണ്ട് അതിൽ ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് എണ്ണപ്പലഹാരങ്ങൾ അങ്ങനെയുള്ള പലതരം കറികൾ നോൺ വെജ്ജ് ഐറ്റംസ് എല്ലാമുണ്ടാകും ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അതുപോലെത്തന്നെ നോൺവെജ്ജ് ഐറ്റംസ് കുറെ ഒരുപാട് അവർക്കുണ്ടാകും അതുപോലെത്തന്നെ ഹൈന്ദവർക്കാണെങ്കിൽ എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ അവരുടെ ചി ഞാ ഇങ്ങനെ പരിപാടികൾക്കവർ ഇറച്ചി എടുക്കലാണ് പതിവ് ഇറച്ചി എടുത്ത് സാധാരണ ചോറിന്റെ കൂടെയും അവർ ഇറച്ചി കഴിയ്ക്കലുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ്